കേരളത്തിലെ കാർഷിക മേഖല പരിസ്ഥിതി സമൂഹം ആഘാതങ്ങൾ അഭിസംബോധന ചെയ്യുന്നതെങ്ങനെയെങ്കിൽ അതായത് സുസ്ഥിരത അതായത് കൃത്യമായിട്ടൊരു സ്ഥായി സ്ഥിരതയായിട്ടുള്ള നമുക്ക് കാർഷിക മേഖലയല്ല അതായത് പലപ്പോഴും ചില കാർഷിക മേഖലയിൽ നമുക്ക് വെ വിലകളുടെ വ്യത്യാസം തന്നെ നമുക്ക് മാറി ഇന്നുള്ള വിലയായിരിക്കില്ല നാളെ അപ്പോൾ സ്ഥിരതയില്ലേ അതിലൊരു സ്ഥിരത വേണം അതുപോലെ തന്നെ ധാർമ്മികത അതായത് ഒരു കൃഷിക്കാരന് നമ്മൾ കൊടുക്കേണ്ട വില അല്ല മാർക്കറ്റിലെത്തുമ്പോളത് കൂടുതൽ വിലയും കൃഷിക്കാരന് കിട്ടുന്നത് നിസ്സാര വിലയുമാണ് അപ്പോൾ കൃഷിക്കാരനോടുള്ളൊരു ധാർമ്മിക ബോധം നമ്മുടെ സമൂഹത്തിന് വേണ്ടതാണ് കാരണം എല്ലാം കഴിഞ്ഞ് മാർക്കറ്റിലെത്തുമ്പോൾ ഭയങ്കര വിലയും അതു ചെയ്ത കൃഷിക്കാരന് വിലയില്ലാത്തൊരു അവസ്ഥയിലേക്കാണ് വരുന്നത് പിന്നെ വൈവിധ്യം പല തരത്തിലുള്ള വിവിധമായ കൃഷികൾ നമുക്ക് ചെയ്യാം അതിൽ തന്നെ മെയിനായിട്ട് വരുന്ന ഒരുപാട് അതായതിപ്പോൾ നെല്ലിൽ തന്നെ പലതര വൈവിധ്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വിവിധ തരം വൈ വിവിധ തരം കാർഷിക മേ കാർഷികത്തിൽ വിവിധ തരം ക കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്കതിൽ കൃത്യമായിട്ട് കാർഷിക മേഖല മുന്നോട്ടു പോകുകയുള്ളൂ പിന്നെ അതിന് അതിന് അതിക്കെ ഉപരി അതിലടിക്കുന്ന രാസവളങ്ങൾ നമ്മുടെ ശരീരത്തിന് അതായത് അത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് വരുന്ന അസുഖങ്ങൾ അത് അതിൽ വരുന്ന അതോടു കൂടി ജി ഒരു കാലഘട്ടം അതായതൊരു ജനറേഷൻ ഫുള്ള് രോഗ ബാധിതരാണ് ആ അതിലടിക്കുന്ന വിഷ മാലിന്യം മൂലം അപ്പോൾ അതിൽ അതിൽ നിന്നൊക്കെയൊരു മാറ്റം വരണമെങ്കിൽ നമ്മുടെ കാർഷിക മേഖല ഒന്നു കൂടി മെച്ചപ്പെട്ടേ പറ്റൂ കാർഷികത്തിൽ മെയിനായിട്ട് വരണത് ഞാൻ പറഞ്ഞേച്ചാൽ ആണെങ്കിൽ ധാർമ്മികത അതായതൊരു കൃഷിക്കാരനോടുള്ള ധാർമ്മികത അയാളത്രയും കഷ്ടപ്പെട്ടദ്ധ്വാനിച്ച് വരുന്ന ഓരോ കാര്യവും അല്ല അവർ കാർഷിക മേഖലയിൽ കഴിഞ്ഞാൽ അത് മാർക്കറ്റിലെത്തുമ്പോൾ ഒരുപാട് വില അതിൻ്റെ ഇടനിലക്കാരനാണ് വില കൂട്ടുന്നത് പക്ഷെ അതിൻ്റൊരംശം പോലും അത് കൃഷിക്കാർക്ക് കിട്ടുന്നില്ല അപ്പം അവരോടുള്ളൊരു ധാർമ്മികതയാണിച്ചെങ്കിലും നമ്മുടെ ആ സമൂഹത്തിൽ ഇവർക്ക് വരുന്ന ആഘാതം വളരെ കൂടുതലാണെന്നാണ് ഞാ എൻ്റഭിപ്രായം അപ്പോൾ അവർക്കൊരു സ്ഥായി സ്ഥിരതയായിട്ട് ഒരു വില കൃത്യമായിട്ടൊരു സ്ഥിരതയിലുള്ളൊരു വില നിശ്ചയിക്കപ്പെട്ടിട്ടാണെങ്കിലത് കൃഷിക്കാരനുപകാരം ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും അത് ഉപകാരം ചെയ്യും അതുകൊണ്ട് ആ സുസ്ഥിരതയും ധാർമ്മികതയും നന്നായി ആവശ്യമുള്ളൊരു കാര്യമാണ് അതുപോലെ രാസവളങ്ങളുടെ ഉപയോഗം കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജനറേഷൻ നമുക്കിനി വരണ കാലഘട്ടം നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ എൻഡോസൾഫാൻ പോലുള്ള കീടനാശിനികൾ ഉപയോഗിച്ചു വരുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം ഒരു ജനറേഷൻ തന്നെ നശിച്ച് പോകുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ കി കീടങ്ങളെ നശിപ്പിക്കാനതിനും വീര്യം കുറഞ്ഞ രാസവളങ്ങളുപയോഗിച്ച് നമ്മുടെ കൃഷി എങ്ങനെ മെച്ചപ്പെടുത്താം കൂടി നമുക്ക് നന്നായിട്ട് ആലോചിക്കാം